ഏ ഇപ്പോൾ എനിക്ക് വളർത്ത് മൃഗങ്ങളേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും വീട്ടില് ഇപ്പോൾ വളർത്താത്ത മൃഗങ്ങള് വളരെ ചുരുക്കമാണ് ഇപ്പോൾ എൻ്റെ കുസ്റ്റഡിയിൽ ഇപ്പോൾ ഞാൻ വളർത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ മീനുകളെയും പിന്നേ പട്ടിനേയുമാണ് പിന്നേ എൻ്റെ അടുത്ത് ലൗ ബേഡ്സ് ഉണ്ടായിരുന്നു പ്രാവുകൾ ഉണ്ടായിരുന്നു തത്ത ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ബേഡ്സ് ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിനൊക്കെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ടെലിഫോൺ ടവറ് ഉള്ളത് കൊണ്ട് എനിക്ക് എന്താ പറയുക ബേഡ്സിനെ അധികം വളർത്താൻ പറ്റാതെ ആയി അപ്പോൾ ഞാൻ അതിനെ ഒക്കെ ഒഴിവാക്കി എന്താ പറയുക കൊടുത്തു പിന്നേ ഞാൻ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഡോഗ് ആയിട്ട് ജർമൻ ഷെപ്പേർഡ് ഒരു പോമറേനിയനും ആണ് ഉള്ളത് അപ്പോൾ ഇവറ്റകളെ രണ്ടിനെയും ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അവരേ നമ്മള് എന്തോരം സ്നേഹിക്കുന്നോ അതിൻ്റെ ഇരട്ടി ആയിട്ട് ആ ഒരു സ്നേഹം തിരിച്ച് തരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പരുപാടിക്ക് ഇപ്പഴും നില്കുന്നത് കാരണം പട്ടികള് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം തന്നെ നമുക്ക് പറയാം കാരണം അവർക്കൊക്കെ നല്ല സ്നേഹമാണ് നമ്മളോട് പിന്നേ ഇവ ഇവര് കൂടാതേ ഇപ്പോൾ ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പിറ്റ് ബുള്ളിനെ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹവും കൂടെ ഇപ്പോൾ നിലവില് എനിക്ക് തോന്നിയിട്ടുണ്ട്